ഞാന് ഒര് അയർൺ ബോക്സ് ആണ് ഓഡറ് ചെയ്തത് പക്ഷേ എന്താ പറയാ അത് പെട്ടെന്ന് നമ്മള് തേയ്ക്കുമ്പോ നമ്മള് കുത്തി ഇടില്ലേ കുത്തി ഇടുമ്പോ ഷോക്ക് അടിക്കന്ന് പിന്നെ ഡ്രസ്സ് ഒക്കെ വേഗം പിടിക്കന്ന് അയർൺ ബോക്സില് വേഗം പിടിയ്ക്ക ഡ്രസ്സക്കെ നമ്മള് അതിലിങ്ങനെ കുറച്ചിടാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഒട്ടും കൊള്ളില്ലാത്ത പ്രോഡക്റ്റ് പോലെ തോന്നി ഞാൻ ഇതിന് മുൻപ് നല്ലതൊന്ന് ഉപയോഗിച്ചോണ്ടിരുന്നതാണ് അപ്പ ഞാൻ കമ്പനി മാറ്റി ഉപയോഗിച്ച് നോക്കിയതാ പക്ഷെ വളരെ മോശം പ്രൊഡക്റ്റ് ആണ് നമുക്ക് അത് ഞാൻ എന്ത് ചെയ്തെന്നു അറിയുവോ ആദ്യം ഇങ്ങനെ വെയ്ക്കും വെച്ച് കഴിഞ്ഞിട്ട് ഓഫ് ആക്കീട്ടാണ് ഇപ്പം തേക്കുന്നത് അല്ലാതെ തേക്കുമ്പം നമക്ക് ഷോക്ക് അടിയ്ക്കും